എൻ്റെ പ്രദേശത്ത് വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു പ്രകൃതി വിഭവമാണ് കാപ്പിയും അതുപോലെതന്നെ തേയിലയും അതിനോട് അനുബന്ധിച്ച് വരുന്ന ബിസിനസ്സ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വിവിധങ്ങളായ പ്രോഡക്ടുകൾ ഉല്പാദിപ്പിക്കാൻ സഹായകം ആകുന്ന ബിസിനസ്സ് സ്ഥാപനങ്ങൾ ആരംഭിച്ച ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ റോ മെറ്റിരിയൽസ് ഇവിടെ സുലഭമായി ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്